ഇലക്ട്രീഷ്യന് ആണോ നമ്മുടെ വീട്ടില് ഇത്തിരി വയറിങ്ങിന്റെ പരിപാടിയൊക്കെ നടത്തണമല്ലോ ആണല്ലേ അതേ ഉടമ്പടിയാണോ ആണോ ഇപ്പോള് പിന്നെ ഏ സി ഫിറ്റ് ചെയ്യണം അതുപോലെ തന്നെ കുറേ ഫാന് ലൈറ്റ് ഇതൊക്കെ ഫിറ്റ് ചെയ്യണം ചില കല്യാണ സംബന്ധമായ ചില പരിപാടികൾക്കാണ് ആ അതുപോലെ തന്നെ പിന്നെ കഴിവതും നേരത്തെ അത് ചെയ്തുതരണം പിന്നെ ഇൻവെർട്ടർ കണക്ഷൻ പിടിപ്പിക്കണം ആ ആ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണം അത് നിങ്ങള്ക്ക് എന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള വിവരം അറിയിക്കുക നമുക്ക് നമുക്കൊരു നാലഞ്ച് ദിവസത്തിനകം ചെയ്യാൻ തുടങ്ങിയാല് വലിയ കാര്യമായിരുന്നു അ എന്നാല് അത് നിങ്ങളെങ്ങനെ വേണമെങ്കിലും ചെയ്തോ എടുത്തുതരണമെങ്കില് എടുത്തുതരാം പിന്നെ വയര് കൂടിയ ഇനം വയര് വേണം എല്ലാം കൂടിയ ഐറ്റങ്ങള് വേണം ഫാനും ഇൻവെർട്ടറും അതുപോലെയുള്ളതൊക്കെ ഞങ്ങള് മേടിച്ചുതരാം ആ ആ ആ വന്ന് കണ്ടിട്ട് അതിൻ്റെ നിങ്ങളുടെ വർക്കിന് അനുസരിച്ചുള്ള നിങ്ങളുടെ റേറ്റ് പറയുക അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഉ ഉ ആ ആ വീട്ടില് വന്ന് നോക്കുക എന്തെങ്കിലും അത്യാവശ്യം വേണ്ട ആ സംസാരിക്കാം ഓക്കെ ഓക്കെ ആ ആ ആ ആ അതൊക്കെ ഞങ്ങള് ആ എ സിയും ഇൻവെർട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് തന്നെ എടുക്കുകയാണ് അതിൻ്റെ ലേബർ ചാർജ് ഒക്കെ നിങ്ങള് പറഞ്ഞേച്ചാല് മതി ഏഹ ആ നിങ്ങള് കണ്ടിട്ട് എന്താണെന്നുവെച്ചാല് നോക്കികൊള്ളണം അതുപോലെ സ്വിച്ചൊക്കെ ഏതാണ്ടൊക്കെ വാങ്ങണം ഫാൻ ഫാൻ ഏതാണ് എടുക്കേണ്ടത് ഏത് കമ്പനിയുടേതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ആ ആാ ആ ഹാ അപ്പം പണിക്കാരൊക്കെ ഉണ്ടല്ലോ ആ ആ പണി തുടങ്ങിക്കഴിഞ്ഞാല് എത്ര ദിവസമെടുക്കും ആ ഓക്കെ ഓക്കെ ഇതിന്റെ ഇതിൻറെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം പെയിൻറിംഗ് വർക്കൊക്കെ നിങ്ങള് കഴിവതും വേഗമൊന്ന് ചെയ്താലല്ലേ ഞങ്ങള്ക്ക് ചെയ്യാനൊക്കുകയുള്ളൂ ഓക്കെ ഓക്കെ ഉം അത്യാവശ്യമാണ് പോകാന് വരട്ടെ ഇത്തിരി കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പം പിന്നെ നിങ്ങള് അതിനുള്ള തട്ടൊക്കെ കൊണ്ടുവരുമോ എണി ഏണിയൊന്നും ഞങ്ങള് കരുതേണ്ട അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് ഞാന് വരുമ്പോഴത്തേക്ക് വീട്ടില് നിങ്ങള് വരുമ്പോള് ഞാൻ വീട്ടില് കാണണമെന്ന് നിര്ബന്ധം വല്ലതുമുണ്ടോ അതോ നിങ്ങള് വൈഫിനോട് പറഞ്ഞ് കാര്യങ്ങള് കാണണമല്ലേ അതുശരി എന്നത്തേക്കാണ് ഇറങ്ങുന്നത് എന്നത്തേക്ക് വരും ആ രാവിലെ രാവിലെ വരണം രാവിലെ വന്ന് അല്ലെങ്കില് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിക്കഴിഞ്ഞാല് നമ്മള് തമ്മില് കാണാനൊക്കത്തില്ല ഓക്കെ ഓക്കെ പേമെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് തീർത്തുതന്നാല് പോരെ നിങ്ങള്ക്ക് തച്ചനുസരിച്ച് കാശ് തന്നാല് പോരെ ഓരോ ദിവസവും നിങ്ങളുടെ തച്ച് പിന്നെ അവസാനം നമ്മുടെ പണി തീരുമ്പോള് കണക്ക് തീര്ക്കുക ഞങ്ങൾ സാധനമൊക്കെ നമ്മള് മേടിക്കാമെന്ന് പറഞ്ഞുകഴിഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല